ഇന്നത്തെ കാലത്ത് ആപ്പുകൾ എന്ന് പറയുന്നത് വാട്സ്ആപ്പ് ഉണ്ട് പിന്നെ ഫേസ്ബുക്ക് ഉണ്ട് പിന്നെ അങ്ങനെയുള്ള ഓരോരോ ഇൻസ്റ്റാഗ്രാം അങ്ങനെയൊക്കെ ഉള്ള ഓരോരോ കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ നമ്മൾ വാട്സ്ആപ്പ് വഴി ആണ് വാട്സ്ആപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒത്തിരിയേറെ ഗുണങ്ങളുണ്ട് കാരണം വെച്ചാൽ മറ്റുള്ളവരുമായി നമുക്ക് പിന്നെ മുഖാഭിമുഖം കണ്ട് സംസാരിക്കാനും പിന്നെ ഒത്തിരി കമ്മ്യൂണിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് നമുക്ക് വാട്സ്ആപ്പ് ഒത്തിരിയേറെ ഉപയോഗങ്ങൾ ഉപയോ ഉപയോഗം നമുക്കുണ്ട് പിന്നെ ഫേസ്ബുക്കിൽ കൂടെ ആണെങ്കിലും ഫേസ്ബുക്ക് ആണെങ്കിലും നമുക്ക് ഇപ്പോൾ എല്ലാവരും ഫേസ്ബുക്കും വാട്സാപ്പും ആണല്ലോ കൂടുതൽ കൈകാര്യം ചെയ്യുന്നത് പിന്നെ കുട്ടികളെ സംബന്ധിച്ച് അത് കുട്ടികൾക്ക് ഇപ്പോൾ ഫോൺ ഇല്ലാതെ ജീവിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് ആണ് ആണെന്ന് തന്നെ നമുക്ക് പറയാം കുട്ടികൾക്ക് തന്നെയല്ല മുതിർന്നവർക്കും ഫോൺ ഇല്ലാതെ ഇപ്പോൾ ഒരു കാര്യത്തിനും നമുക്ക് പറ്റത്തില്ല എല്ലാ കാര്യത്തിനും ഇപ്പോൾ നമ്മൾ ഫോണിനെ ആണല്ലോ ആശ്രയിക്കുന്നത് നെറ്റ് കണക്ഷൻ ഉള്ള ഫോൺ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് കാരണം വെച്ചാൽ നമുക്ക് ഒത്തിരിയേറെ ഗുണങ്ങൾ ഫോണിൽ കൂടെ നമുക്ക് കിട്ടുന്നുണ്ട് ഒത്തിരിയേറെ തിന്മകളും ഫോണിൽ കൂടെ കിട്ടുന്നുണ്ട് പക്ഷേ നമ്മൾ ആ തിന്മകളെ അല്ല നമ്മൾ നോക്കേണ്ട നമ്മൾ നമുക്ക് എന്തുമാത്രം ഗുണം ചെയ്യാൻ പറ്റും എന്തെങ്കിലും പറ്റുമ്പോൾ ഒക്കെ പോയി വാട്സ്ആപ്പ് അല്ലെങ്കിൽ ഫേസ്ബുക്ക് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഒക്കെ ആണെങ്കിൽ നമുക്ക് എന്തൊക്കെയാണ് നമുക്ക് ചെയ്യുന്നത് ഗുണങ്ങൾ അത് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ടുള്ള നമ്മൾ ഫോൺ നമുക്ക് തെറ്റായ മാർഗത്തിലൂടെ ഉപയോഗിക്കുന്നവരുണ്ട് കാരണം വെച്ചാൽ കൊച്ചുകുട്ടികൾ അതായത് പഠിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങൾക്കൊക്കെ അത് ഒത്തിരി ഏറെ ദോഷം ചെയ്യുന്നുണ്ട് എന്നാൽ കൊറോണയുടെ സമയത്തൊക്കെ ആണെങ്കിലും കുഞ്ഞുങ്ങൾക്കൊക്കെ ഏറെ ഉപയോഗ ഉപയോഗപ്രദമായിട്ട് സ്മാർട്ട് ഫോൺ ഈ സ്മാർട്ട് ഫോൺ തന്നെയാണ് നിങ്ങൾക്ക് ഓൺലൈൻ വഴിയല്ലേ ക്ലാസുകളൊക്കെ നടത്തിക്കോണ്ടിരുന്നത് സമയത്താണ് നമ്മുടെ കൂടുതൽ ഈ സ്മാർട്ട് ഫോൺ കുട്ടികൾ ഉപയോഗിക്കാൻ തുടങ്ങുന്നത് പക്ഷേ കുട്ടികൾ അത് ദുരുപയോഗം ചെയ്യാൻ ഒത്തിരിയേറെ ദുരുപയോഗങ്ങൾ ചെയ്യുന്നുണ്ട് അതിലേറെ ഒത്തിരി നഷ്ടങ്ങളും നമുക്ക് സംഭവിച്ചിട്ടുണ്ട് പിന്നെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കു ഇപ്പോൾ ഫോൺ ഇല്ലാതെ പറ്റില്ല എന്നുള്ള ഒരു രീതിയിലാണ് കുട്ടികളും വളർന്നിരിക്കുന്നത് ഗെയിമുകൾ കളികൾ കുഞ്ഞുങ്ങളൊക്കെ ആണേലും ഗെയിം കളിക്കാൻ കളിക്കാൻ കളികൾക്കാണെങ്കിലും ഇതെല്ലാം ഫോൺ അല്ലേ ഉപയോഗിക്കുന്നത് വാട്സ്ആപ്പ് നെറ്റ് ഉള്ള ഫോൺ ആണ് ഇപ്പോൾ എല്ലാവരും അത് ഉപയോഗിക്കുന്നത്